മതപരമായ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ മോശമായ അഭിപ്രായം തന്നെയാണ് കാരണം ഈ പണ്ട് മുതൽ ഈ മനുഷ്യർ കാട്ടിൽ വസിക്കുമ്പം തൊട്ടേ ഉണ്ട് ഈ അന്ധവിശ്വാസങ്ങളെ പിന്തുടരുന്ന് അതന്നെ കഴിഞ്ഞ പിൻതലമുറയായിട്ട് എല്ലാവരും തുടർന്ന് തുടർന്ന് പോവുന്നുണ്ട് അതിലും അതുപോലെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്ന് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയാ ക്രിസ്ത്യൻ മതക്കാരാണെങ്കിൽ ഖുറാൻ എടുത്ത് അല്ല ഹിന്ദു മുസ്ലിം മതക്കാരാണെങ്കിൽ ഖുറാൻ എടുത്തിട്ട് ഈ വരികൾ വായിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷമങ്ങൾ പകുതിയും മാറുമെന്നാണ് അവരെ വിശ്വാസം അതുപോലെ തന്നെ എന്താ പറയാ ഈ നിസ്കരിക്കുന്ന സമയത്ത് ഈ എന്താ നെയിൽ പോളിഷ് അങ്ങനത്തെ ഓ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ആ ഓരോ മതത്തിലും ഓരോ വിശ്വാസം അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു മതത്തിലാണെങ്കിൽ അം സ്ത്രീകൾപറ്റാത്ത സമയത്ത് അമ്പലത്തിൽ പോവാൻ പാടില്ല എന്ത് കൊണ്ടാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളെന്ന് ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് കാരണം ദൈവം ആ ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നതാണ് ഇതൊക്കെ അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനായിട്ട് ഇങ്ങനെ മാറ്റി നിൽക്കേണ്ട ആവശ്യം ഇത് അല്ല അതുപോലെ തന്നെ എല്ലാ മതത്തിലും ഉണ്ട് അതുപോലത്തെ അന്ധവിശ്വാസങ്ങൾ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് മതം മതം ഇങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻന്ന് ഇങ്ങനെ വേർതിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ മനുഷ്യരെല്ലാരും ഒന്നാണ് അവർക്കെല്ലാവർക്കും തുല്യ അവകാശം എന്ന ശ്രീ നാരായണ ഗുരു പറഞ്ഞത് പോലെ ജാ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതീന്ന് പറഞ്ഞത് പോലെ മനുഷ്യൻ നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ ജാതിയോ മതമോ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല വെറുതെ ഓരോ അന്ധവിശ്വാസം നമ്മളിപ്പോൾ എന്താ പറയാ പൊതുവേ ഹിന്ദു മതത്തിൽ നമ്മൾ എന്താ പറയാ ശ്രീ രാമൻ ഓരോ കഥകൾ ഐതിഹ്യങ്ങൾ നമ്മൾ കാണാം ശ്രീ രാമൻ ഇങ്ങനെ പതിക്ക് പതിയെ ഒഴിവാക്കി അതൊക്കെ ശരിക്ക് പറഞ്ഞാൽ എന്തിനാണ് ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം പതിയെ ഒഴിവാക്കി ജനങ്ങളാണോ തീരുമാനിക്കുന്നത് നമ്മുടെ ജീവിതം നമ്മളല്ലേ ജീവിക്കുന്നത് അതിന് മറ്റുള്ളവരെ മുൻ നോക്കീട്ടെന്താണ് കാര്യം അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അന്ധവിശ്വാസം അത് സത് സത്യം പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളൊന്നും വേണ്ടാന്നന്നെയാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും ഒരുപോലെ ജീവിക്കുക മനുഷ്യൻ മനുഷ്യന്മാരെല്ലാം ഒരേ ജി ഒരേ വർഗത്തിൽ ഒരേ ഒരേ പോലെ ജീവിക്കുക ജാതിയും ഇല്ല മതവും ഇല്ല ഒന്നും മനുഷ്യരാണെന്നതിൽ ഒരു ബോധത്തിൽ ജീവിക്കുക എല്ലാ മതവും എല്ലാവർക്കും വിശ്വസിക്കാം ഇപ്പം മുസ്ലിം മതം വിശ്വസിക്കും മുസ് ഇപ്പം എന്നാലും ഈ ഒരു തലമുറയിലേക്ക് ഇതൊക്കെ ഒരുപാട് മാറീട്ടുണ്ടെന്ന് കാരണം ഇപ്പം ഇൻ്റർകാസ്റ്റ് ഇൻ്റർറിലീജിയൻ മാരേജൊക്കെ നടന്നു വരുന്ന ഒരു സമയത്ത് അവർ തമ്മിൽ രണ്ടാൾക്കാർ തമ്മിൽ എന്താ പറയാ മതം അപ്പം അവർക്ക് അവരുടേതായ ഇഷ്ടത്തിൽ മതങ്ങൾ വിശ്വസിക്കാം അതിൽ അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ല ചില പഴമയുള്ള ആൾക്കാർ ചിലപ്പോൾ ഇതിലൊന്നും വിശ്വസിക്കുന്നുണ്ടാവില്ല അവർക്ക് അവരുടേതായ ഓരോ കാഴ്ചപ്പാട് അങ്ങനത്തെയൊക്കെ ഉണ്ടാവും അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കുവാണെങ്കിൽ ഒരു വിശ്വാസതയെ നമ്മൾ ഉൾക്കൊള്ളുകയും ഒന്നും ചെയ്യാതെ വിശ്വാസം വേണം പക്ഷേ അന്ധവിശ്വാസം വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളത്